ഞങ്ങളുടെ പ്രദേശത്തെ യുവാക്കളെ പലതരത്തിലുള്ള തൊഴിലില്ലായ്മ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്താണെന്നു വച്ചാൽ പുതിയ പുതിയ സാങ്കേതിക വിദ്യയുടെ കടന്നുവരവ് അത് തൊഴിലവസരങ്ങൾ കുറയ്ക്കുന്നു ഇത് യുവാക്കൾക്ക് തൊഴിൽ കിട്ടുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു കാരണം ഒരു ജോലിക്ക് കുറച്ച് ആളുകളുടെ മാത്രം സഹായം മതിയാവുന്നു അതായത് പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുമ്പോൾ അതിൽ തൊഴിലവസരങ്ങൾ കുറയുന്നു ആളുകളുടെ ആവശ്യം കുറഞ്ഞു വരുന്നു ഇതു വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ്